ഞാൻ ഹെഡ് ഫോൺ ആമസോണിൽ നിന്ന് ഓർഡറീയാണ് ചെയ്തത് മ് നമ്മൾ എനിക്ക് ഹെഡ് ഫോൺ അത്യാവശ്യം ആണ് കാരണം കൂടുതൽ നമ്മൾ ഫോണിൽ ഇങ്ങനെ ഇങ്ങനെ ഫോൺ വെച്ച് സംസാരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞാനൊരു ഹെഡ് ഫോൺ വെച്ചാൽ അടുത്തുള്ളവർക്കും ബുദ്ധിമുട്ടില്ല നമ്മൾ ഉച്ചത്തിൽ പാട്ട് കേൾക്കണ്ട പാട്ട് ഇപ്പം നമ്മൾ ഒറക്കനെ വെയ്ക്കുക സിനിമ ഒറക്കനെ വെയ്ക്കുക അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഒരു ഹെഡ് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഫോൺ കാണാമല്ലോ ഫോൺ യൂസ് ചെയ്യാമലോ എന്ന് വെച്ചിട്ടാണ് ഒരു ഹെഡ് ഫോൺ വാങ്ങിച്ചത് പക്ഷേ ഹെഡ് ഫോണിൽ ചാർജ് നിൽക്കുന്നില്ലാ ചെവിയിൽ മര്യാദക്ക് കയറുന്നില്ല ഫുൾ കംപ്ലെയിൻ്റ് എനിക്ക് സൗണ്ട് പോലും കേൾക്കുന്നില്ല ഇടക്ക് ഇടക്കിങ്ങനെ വിട്ടുപോകും ചാർജ് കയറുന്നില്ല ഞാൻ ചാർജ് ആക്കാറുണ്ട് ഞാൻ ചാർജ് ആക്കുന്ന കൂട്ട് ഹെഡ് ഫോണാണ് വാങ്ങിച്ചത് നമ്മളിങ്ങനെ ചാർജ് കുത്തി വെക്കുന്ന കൂട്ട് ബ്ലൂ ടൂത്ത് കണക്ട് ചെയ്ത് അങ്ങനെ ഇതാക്കാൻ വെച്ചിട്ട് പക്ഷേ ഭയങ്കര ഫ്ലോപ്പ് ആയിപ്പോയി എൻ്റെ പൈസയും പോയി ആഗ്രഹിച്ചു വാങ്ങിയതാണ് ഞാൻ അവർ പറഞ്ഞ നിലവാരവും ഒന്നും എനിക്കതിൽ തോന്നിയില്ല